ഞാനൊരു സാധാരണ കുടുംബത്തിലെ വീട്ടമ്മയാണ് ഒരുപാട് പൈസ കൊടുത്തിട്ടൊന്നും ഞാൻ അങ്ങനെ ചെടി വാങ്ങുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാമ്പത്തികമൊന്നും എനിക്കില്ല ഞാൻ വീട്ടിലുള്ള ചെടികൾ തന്നെ അത് കൊമ്പ് മുറിച്ച് വേറെ വേറെ നട്ടിട്ട് അങ്ങനെ പുതിയ ചെടിയാക്കും അല്ലാണ്ട് ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ചെടീൻ്റെ കൊമ്പു മാങ്ങീട്ട് അത് മറ്റു വീടുകളിൽ കാണുന്ന നമ്മുടെ അടുത്ത് ഇല്ലാത്ത ചെടീൻ്റെ കൊമ്പ് മാ അവിടുന്ന് വാങ്ങി കൊണ്ടുവരും കൊമ്പായാലും തൈ ആയാലും വിത്ത് ആയാലും അങ്ങനെ അവർ അവരോട് ചോദിച്ചു വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടു വന്ന് കുഴിച്ചിടുക ഇങ്ങനെയെല്ലാം തന്നെയാണ് ചെടി നടുന്നത് അല്ലാണ്ട് വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങുക വാങ്ങലൊന്നും ഇല്ല പിന്നെ ഇതിന് നമ്മൾ ഇതിനായിട്ട് പ്രത്യേകം മരുന്നുകളോ അങ്ങനെയൊന്നു ചെയ്യുന്നൊന്നുമില്ല ചാണകം ഇട്ടുകൊടുക്കും പശുവിൻ്റെ ചാണകം അത് നമ്മൾ ഈ ചെടിക്ക് ഇട്ടു കൊടുക്കും പിന്നെ വെള്ളം നനച്ചു കൊടുക്കും പിന്നെ ഇതിൻ്റെ ചുവട്ടിലുള്ള ചെറിയ പുല്ലും അതെല്ലാം വേരെല്ലാം അതെല്ലാം പറിച്ച് വൃത്തിയാക്കി ഇതിൻ്റെ ചെടിയിലുള്ള പുഴുവിനെ എല്ലാം നുള്ളിയെടുത്ത് ചെടിയിനേ നോക്കും വെള്ളം നനക്കുമ്പോൾ ഒന്ന് അതിൽ അതിന്മേൽ എന്തെങ്കിലും പുഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ച തുള്ളനോ അങ്ങനെ വല്ലതും പറ്റി നിന്നിട്ടുണ്ടോയെന്ന് നോക്കും അത് എടുത്തു നശിപ്പിക്കും അതല്ലാണ്ട് വേറെ മ പൂ കായ്ക്കാനായിട്ട് പ്രത്യേകം മരുന്ന് വാങ്ങി കൊണ്ടുവന്ന് അത് അടിച്ചു കൊടുക്കുകയോ അതൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല അതിനുള്ള സാമ്പത്തികം ഒന്നും നമുക്കില്ല ഞാൻ ഈ ചാണകം ഇട്ടു കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചെടിയെ പരിപാലിക്കുന്നത് പിന്നെ എല്ലാം നല്ല നിരത്തി കുഴിച്ചിട്ട് ചെറിയ സഞ്ചികളിലാക്കി നമ്മൾ വീട്ടിൽ സാധനങ്ങൾ എല്ലാം വാങ്ങുന്ന സഞ്ചി അതിൽ മണ്ണ് നിറച്ചിട്ട് കുഴിച്ചിടും കുഴിച്ചിട്ടിട്ട് നമ്മൾ ഈ മതിലിന്മേൽ വെച്ചിട്ടാണ് വെള്ളം അല്ലാണ്ട് വലിയ പൈസേൻ്റെ ചട്ടി വാങ്ങിയിട്ട് അതിലൊന്നും കുഴിച്ചിട്ട് കുഴിച്ചിടുകയൊന്നുമല്ല ചെയ്തിട്ടുള്ളത് പിന്നെ ചെമ്പരത്തി അതുപോലെത്തെ പനിനീർ അങ്ങനത്തെ കുറച്ച് കുറച്ച് വലിയ ചെടിയെല്ലാം മണ്ണിൽ തന്നെ കുഴിച്ചിട്ടിട്ടുള്ളത് തോട്ടവാഴ ഇതെല്ലാം മണ്ണിൽ നിരത്തി കുഴിച്ചിട്ടീന് പിന്നെ അല്ലാണ്ടുള്ള ചെറിയ ചെറിയ ചെടികളാണ് സഞ്ചികളിൽ കുഴിച്ചിട്ടിട്ടുളളത് നമ്മൾ അങ്ങനെ പൈസ കൊടുത്ത് ചട്ടി വാങ്ങുകയോ അതൊന്നും ചെയ്യാറില്ല